ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ രാവിലെ അവിയൽ ഉണ്ടാക്കാറുണ്ട് പിന്നെ മീൻകറി മീൻ വറുത്തത് ചീര പോലുള്ള തോരൻ ഐറ്റംസ് ഒക്കെ വയ്ക്കാറുണ്ട് അതൊക്കെ ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ ചേർന്ന സംഭവങ്ങളാണ് ചീര അവിയൽ തോരൻ എന്നൊക്കെ പറയുന്നത് കാരണം അതിനകത്ത് ഒരു മസാല മാത്രമല്ല നമ്മളിടുന്നത് പല പല മസാലകളിടും വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത്

അല്ലെങ്കിൽ സലാഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അടുത്ത ആൾക്കാണെങ്കിൽ അവിയൽ അവി അവിയൽ ഇഷ്ടമുള്ള രണ്ട് മൂന്ന് പേർ എൻ്റെ വീട്ടിലുണ്ട് അവർക്ക് അവിയൽ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ മീൻകറി ഇല്ലാത്ത ഒര് ദിവസവും വീട്ടിൽ ഉണ്ടാവാറില്ല അതൊക്കെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവിയൽ എന്നുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഹെൽത്തി ആണ് മോര് സലാഡ് മുട്ട ബീഫ് ഐറ്റംസ് ഒക്കെ മേടിക്കാറുണ്ട് പക്ഷേ അത് വല്ലപ്പോഴേ മേടിക്കാറുള്ളൂ എങ്കിലും ആരോഗ്യത്തിന് ആ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ചേർന്നിട്ടുള്ള ഒരു കറികളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ വയ്ക്കാറുള്ളത് പിന്നെ സാമ്പാർ പോലത്തെ ഐറ്റംസ് ഇടയ്ക്ക് പോ വയ്ക്കാറുണ്ട് കാരണം അതിനകത്ത് ഒരുപാട് പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കറികളല്ലേ അത് പിന്നെ ഈ തൊ അ അവി അവിയൽ ഇലക്കറികളാണ് വീട്ടിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മുരിങ്ങ പോലെയുള്ള ഇല ചീര കോവൽ കോ കോവലിൻ്റെ ഇല ഇതൊക്കെ പിച്ചി തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യും അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതും അതൊക്കെ ഒരുപാട് ആരോഗ്യത്തിന് പൂർണ ആരോഗ്യം കിട്ടുന്ന ഐറ്റംസ് ആണെന്നാണ് എല്ലാവരും പറയാറുള്ളത് ഡോക്ടർമാർ വരെ പറയാറുണ്ടല്ലോ ഇലക്കറികൾ ഒരുപാട് കഴിക്കണം അയണിൻ്റെ സാന്നിധ്യം കൂട്ടണം എന്നൊക്കെ പറയുമല്ലോ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ ഇലക്കറികൾ അതുപോലെ സാമ്പാർ അവിയൽ അതിനകത്തും ഒരുപാട് മസാലാസും ഒരുപാട് പച്ചക്കറികളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അതുംകൂടെ ഒക്കെ ചേരുമ്പോഴത്തേക്ക് ചേന പോലെയുള്ള ഐറ്റ് ഐറ്റംസ് കിഴങ്ങ് മുരി മുരിങ്ങയ്ക്ക പിന്നെ എന്താണ് നമ്മൾ ചേർക്കുന്നത് അതിനകത്ത് തക്കാളി അങ്ങനെ ഒരുപാട് പച്ചക്കറി ഐറ്റംസ് ചേർന്നിട്ടുള്ളത് ആയിരിക്കുമല്ലോ ആ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആരോഗ്യപൂർണമായിട്ടുള്ള കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത് പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ ചിക്കനോ ഇറച്ചിയോ അങ്ങനെയുള്ള അങ്ങനെയുള്ളതൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ഐറ്റംസ് ആണ് അതൊക്കെ പിന്നെ ഞാൻ വേറെ എന്ന് പറയുമ്പം സലാഡ് സലാഡ് നമ്മൾ സൈഡ് ഡിഷ് ആയിട്ട് മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അതിനകത്തും പച്ചക്കറി അതെന്താണ് സവാള ഉപയോഗിക്കാറുണ്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമ്മൾ അതിനകത്തും ഉപയോഗിക്കാറുണ്ട് മെയിൻ ആയിട്ട് തൈര് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വയറിനൊക്കെ ഇത്തിരി തണുപ്പ് കിട്ടുന്നൊരു സംഭവമാണല്ലോ തൈര് അത് ആ അതും നമ്മൾ മെയിൻ ആയിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മോരിനകത്തും തൈര് ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മൾ പരമ്പരാഗത യ് വിഭവമാണല്ലോ മോര് അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതും അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി കറിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുട്ട ഇതൊക്കെയുളളൂ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ വിഭവങ്ങളൊക്കെയായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ആരോഗ്യപൂർണത്തിന് ആരോഗ്യത്തിന് ഏറ്റവും നല്ല മികച്ച വിഭവങ്ങൾ തന്നെയാണ് ഞാനീ പറഞ്ഞതൊക്കെ